കുട്ടികൾ ഭാവിയിലെ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരായി തീരുന്നതിനായി അവരെ വാർത്തയിൽ താൽപര്യം വർധിപ്പിക്കുന്നത് വളരെയേറെ പ്രധാനമാണ് വാർത്തകൾ എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ ലോകത്ത് നടക്കുന്ന വിശേഷങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണമാണ് നമുക്ക് കിട്ടുന്നത് വാർത്തകൾ വായിക്കുന്നതിലൂടെയും വാർത്തകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള താൽപര്യം കുട്ടികൾ ജനിക്കുക എന്നത് വളരെ പ്രധാനകരമാണ് കുട്ടികളുടെ മാനസ്സികവും ശാരീരികവും ബൗദ്ധ്യവുമായ വികാസത്തിനും വളർച്ചയ്ക്കും ഒക്കെ വാർത്തകൾ വളരെ അനിവാര്യമാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാംതന്നെ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും വാർത്തകൾ വളരെയേറെ സഹായിക്കുന്നു കുട്ടികൾ നാളത്തെ പൗരന്മാരാണ് വളർന്ന് വരുന്ന കുട്ടികളാണ് നാളത്തെ ഭാവി ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് അപ്പം അവരിൽ വാർത്തകൾ കൃത്യമായി മനസ്സിലാക്കുക അതിനനുസരിച്ച് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനാൽ ഭാവിയിലെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരായി തീരുന്നതിന് നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ വിശേഷങ്ങളും കൃത്യമായി അറിയുക എന്നത് ഓരോ കുട്ടിയുടെയും അവകാശവും അവരുടെ ഉത്തരവാദിത്തവുമാണ് അതിനൊക്കെയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്കും കുട്ടികളെ സഹായിക്കാൻ പറ്റും വിദ്യാലയങ്ങളിൽ വാർത്താമാസികകൾ വരുത്തുക പത്രങ്ങൾ വായിപ്പിക്കുക അതുപോലെത്തന്നെ പത്രത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക അതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടത്തുക ലഘു കുറിപ്പുകൾ ഉണ്ടാക്കുക പോസ്റ്റർ നിർമ്മിക്കുക മുതലായവ കുട്ടികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന ലോകോത്തരങ്ങളായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളും പുതിയപുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചുള്ള അറിവുകളും അതുപോലെത്തന്നെ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെകുറിച്ചും യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങളെകുറിച്ചും അത് നമ്മുടെ സാമ്പത്തികം സാമൂഹികം സാമുദായികപരമായ മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെകുറിച്ചും ഒക്കെ മനസ്സിലാകുന്നതിന് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്നു ഈ വാർത്തകൾ വായിക്കുന്നത് ഇന്ന് നാം കാണുന്ന പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ ശരിയായ രീതിയിൽ കുട്ടികളെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെന്നാലും അധ്യാപകർക്കും വിദ്യാഭ്യാസസ്ഥാപനങ്ങൾക്കും തീർച്ചയായിട്ടും ഇതിലൊരു പങ്ക് വഹിക്കാൻ കഴിയുന്നു ഇന്ത്യൻ ഭരണഘടനയെ ആദരിക്കുക പൊതുമുതലുകൾ സംരക്ഷിക്കുക അവയെ അവയെ സൂക്ഷിക്കുക മുതലായവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് വാർത്തകൾ കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ ആ കുട്ടികളുടെ ബൗദ്ധികതലം വർദ്ധിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിന് അനുസരിച്ച് അവർ പുതിയ സാങ്കേതികവിദ്യകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് അവർക്ക് അതിനെ മനസ്സിലാക്കുന്നതിനും ഒക്കെ വാർത്തകൾ ഏറെ സഹായിക്കുന്നു വാർത്താമാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ അതുപോലെ മുതിർന്ന ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റും കാണുന്നുണ്ട് അവരുമായിട്ടുള്ള ചർച്ചകളും അതുപോലെത്തന്നെയുള്ള സംവാദങ്ങളും ഒക്കെ കുട്ടികളിൽ വാർത്ത വായിപ്പിക്കുന്നതിന് ഏറെ പ്രോത്സാഹനം ചെയ്യിപ്പിക്കുന്നു പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾ കുട്ടികളിൽ വാർത്ത വാർത്ത വായിക്കുന്നതിന് കൂടുതൽ താൽപര്യം ഉണ്ടാകാൻ അവരെ സഹായിക്കുന്നു